ഹലോ ഇത് മമ്മൂസിൻ്റെ കടയല്ലെ അതെ ഞങ്ങളേ ഒരു പത്ത് ഞങ്ങൾക്കിന്നൊരു പാര്ട്ടി ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇന്നൊരു പത്ത് ബിരിയാണി ഓഡറ് ചെയ്തിരുന്നു പക്ഷെ ഞങ്ങളുടെ ആ പോഗ്രാമുണ്ടല്ലോ അത് ഇന്ന് ക്യാന്സലായിപ്പോയി അപ്പം ഞങ്ങള്ക്ക് ഞങ്ങൾ ഞങ്ങൾക്കത് വേണ്ട അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമോ അതെന്തെങ്കിലും അതിന് വല്ലതും തരണമെന്നോ വല്ലതും ഉണ്ടോ ചില സാങ്കേതിക കാരണങ്ങള്കൊണ്ടാണ് ഞങ്ങളത് വേണ്ട അല്ലെങ്കിൽ ഞങ്ങളത് അല്ലെങ്കിൽ ഞങ്ങൾ അത് ഉടനെ തന്നെ എടുത്തേനെ അപ്പം ഞങ്ങളുടെ ആ ആവിശ്യം അത് ഉപയോഗിച്ചില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ ഇല്ലെങ്കിൽപ്പിന്നെ അതിന്റെ ഏന്തെങ്കിലും എക്സ്പെന്സോ വല്ലതും നിങ്ങൾക്ക് തരണമോയെന്ന് വല്ലതും ഉണ്ടോ ഞങ്ങളത് ചോദിക്കുകയാണ് എന്താണെന്ന് വച്ചാലേ നിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകലും ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകലും നാളെ ഒരവസരത്തില് ഇനി എന്തെങ്കിലും ഒരു പോഗ്രാം വരുമ്പം നിങ്ങളെ ഞങ്ങളേല്പിക്കേണ്ടതല്ലേ അപ്പം നിങ്ങൾ പറയുമല്ലോ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളിതുപോല ഞങ്ങളെ ഏല്പിച്ചേച്ചും ഇന്നതുപോല ഒരു സമയത്ത് ഫുഡ് നിങ്ങൾ വേണ്ടെന്ന് വച്ചില്ലേ അപ്പം ഞങ്ങൾക്കത് വെയ്സ്റ്റായിപ്പോയെന്ന് പറയല് അതുകൊണ്ടാണ് ഞങ്ങൾ എടുത്ത് ചോദിക്കുന്നത് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഓക്കെ ഓക്കെ ഓക്കെ ശരി താങ്ക് യൂ താങ്ക് യൂ